നിയമപരമായി രേഖകൾ എടുക്കാൻ എല്ലാം തന്നെ പ്രയാസമുള്ളതാണ് അത് എന്നാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചെടത്തോളം ആവശ്യമുള്ള ഘടകങ്ങളാണ് ഇത് പ്രയാസമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇവ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രയാസമുള്ളതാണ് നമ്മളിത് സാധാരണ നമുക്ക് എന്ത് രേഖകള് ലഭിക്കണമെങ്കിലും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് മുതല് മരണ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് പല വിധത്തിലുള്ള രേഖകൾക്കും ജനന നമുക്കിപ്പോള് ഒരു പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന രേഖകള് ഇതെല്ലാം തന്നെ കൊടുക്കണം അതുപോലെ തന്നെ ഒരു ആധാർ എടുക്കണമെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ആധാർ ആവശ്യമുണ്ട് റേഷൻ കാർഡ് ആവശ്യമുണ്ട് അതേപോലെ പല വിധത്തിലുള്ള രേഖകള് ഇതിനെല്ലാം ആവശ്യമുണ്ട് നിയമപരമായിട്ടുള്ള ഈ രേഖകൾ എടുക്കുന്നതിന് വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് പല ദിവസങ്ങള് കയറി ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് പ്രയാസമുള്ളവയാണ് ഇത് ലഭിക്കാനായിട്ട് നമ്മള് ഒരുപാട് ആപ്ലിക്കേഷൻ അപേക്ഷകള് സമർപ്പിക്കേണ്ടി വരും അതിനുള്ള കാലതാമസം നമ്മള് കാത്തിരിക്കേണ്ടി വരും ഏറ്റവും പ്രയാസമുള്ളത് പാസ്പോർട്ട് അങ്ങനെയുള്ള കുറച്ച് രേഖകള് തീർച്ചയായിട്ടും പ്രയാസമുള്ളത് ഇതാണ്